ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് നിർജീവ വസ്തുക്കളെ വരക്കാൻ അങ്ങനെ വരക്കാനുള്ള ബുദ്ധിമുട്ടുകള് ഒരു വസ്തുവിനെ നമ്മൾ അതിൻ്റെതായ ഷേപ്പിനും ആ ഒരു നിറത്തിനും അത് ഇരിക്കുന്ന ഇരിക്കുന്ന പ്രതലത്തെ തുടങ്ങി അത് അത് എന്താണോ തുടങ്ങി അതിൻ്റെ എല്ലാ ഡി കാര്യങ്ങളും നമ്മൾ ചിത്രത്തില് ഉൾപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഒബ്സർവേഷൻ നന്നായിട്ട് വേണം ഒരു ചിത്രം വരക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഒബ്സർവേഷൻ ആണ് അത് നമുക്ക് നമ്മൾ വിചാരിക്കും പോലെ അല്ല നമ്മൾ അതിൽതന്നെ ലയിച്ച് ചേരണം എങ്കിലേ നമുക്ക് അത് അത്രക്ക് അത്രക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് വരക്കാൻ സാധിക്കുള്ളൂ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ നമ്മളങ്ങനെ വേറെ ഒരു ഇതിലും കൊട് പ്രാധാന്യം കൊടുക്കാതെ ചിത്രത്തിന് നമ്മൾ വരയ്ക്കുന്നത് എന്താണോ അതിലേക്ക് തന്നെ നോക്കി ആ ഒരു ചിത്രത്തെ നമ്മൾ നമ്മുടെ മനസിൽ തലച്ചോറിൽ ഒപ്പി എടുത്ത് ആ ഒരു രീതിയിൽ വേണം നമുക്ക് വരക്കാൻ എങ്കിലേ അത് നമുക്ക് പെർഫക്റ്റ് ആക്കാൻ പറ്റുളളൂ വളരെ ഭംഗി ഉള്ളതാക്കാൻ പറ്റുളളൂ